കഴിഞ്ഞ ഒരു വർഷത്തിനെടയില് അങ്ങനെ അവിസ്മരണീയമായ സംഭവങ്ങളൊന്നും എൻ്റെ ലൈഫില് സംഭവിച്ചിട്ടില്ലെങ്കിലും എൻ്റെ ലൈഫില് ഞാൻ കുറച്ച് ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്യുകയും ലൈഫില് കുറച്ച് മാറ്റങ്ങൾ വരാൻ ശ്രമി ശ്രമിക്കുകയും ഞാനൊരുപാട് ചെയ്തിട്ടൊണ്ട് ലൈഫ് കുറച്ച് മുന്നോട്ട് കൊണ്ട് പോവാൻ വേണ്ടീട്ട് ഞാൻ എൻ്റെ കഴിവുകള് വള വളർത്തുകയും അതുപോലെ തന്നെ എനിക്ക് കുറച്ച് വെയ്റ്റ് കുറയ്ക്കണമെന്നുണ്ടായിരുന്നു അതിന് വേണ്ടി ഞാൻ പരിശ്രമിക്കുകയും ചെയ്തു ഈ വർഷം ഒരു വർഷത്തിനിടയില് ആ ഞാനിപ്പൊരു ഒരു ഏഴ് എട്ട് കിലോ വെയ്റ്റ് ഞാൻ ഓൾ റെഡി കുറച്ചു അങ്ങനെ കുറച്ച് മാറ്റങ്ങള് എൻ്റെ ലൈഫില് ഞാൻ വരുത്തി അതുപോലെ തന്നെ എനിക്ക് ചിത്രം വരക്കാനും പെയിൻറ്റ് പെയിൻറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു ഞാനാ കഴിവിനെ കുറച്ചും കൂടി വളർത്തുകയും അതെൻ്റെ പ്രെഫഷണൽ ലൈഫാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു ചെയ്തു കൊണ്ടിരുന്നു ആ അതുപോലെ അങ്ങനെ കുറച്ച് കാര്യങ്ങള് എൻ്റെ ലൈഫില് മാറ്റങ്ങള് ഞാൻ വരുത്തി അതുപോലെ ഈ കഴിഞ്ഞ ഒരു വർഷം എനിക്ക് വളരെ പ്രയാസമുള്ള ഒരു വർഷം തന്നെ ആണ്